കരകൗശല മേഖല ഇന്ന് എന്താ പറയുക അവര് അവരുടെ സാധനങ്ങൾക്ക് എന്താ സബ്സിഡിയോ കിഴിവോ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ വച്ചാൽ ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കള് കിട്ടാനോ അതിൻ്റെ ലഭ്യത കുറവാണ് പിന്നെ അതുകൊണ്ടാണ് കൂടുതല് അവർക്കുള്ള പിന്നെ എന്താ പറയുക കൂലികളും പി അവരുടെ ചിലവും ഒക്കെ കഴിയണ്ടേ കുറച്ചുകൂടി എന്നാൽ ഗവൺമെൻറ് അതിന് കുറച്ചുകൂടി എടുത്ത് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ അവരുടെ എന്താ പറയുക ഇതിന് എന്താ പറയുക ഇതിനുവേണ്ട സം അ അസംസ്കൃതവസ്തുക്കൾ ഒക്കെ എവിടെ നിന്നെങ്കിലും എത്തിച്ചു കൊടുക്കുകയോ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കില് ഈ വെ വിലക്കോ അവരുടെ ജീവിതത്തിന് ഒക്കെ ഒരു ഇതുണ്ടാകും കയറു കയറ് ഉൽപന്നങ്ങൾ ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ പോലെയാണ് ഉള്ളത് വിദേശരാജ്യങ്ങളിലാണ് അതൊക്കെ കൂടുതലായിട്ടുള്ളത് ഇവിടെയൊന്നും ആർക്കും വാങ്ങാന്ന് വച്ചാല് കയർ കിട്ടാൻ ചകരിയില്ല അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ അലങ്കാര പായ്കളൊക്കെ ആണെങ്കിലും ഇവിടെ പായയുടെ ആയ അസംസ്കൃത വസ്തുവായ കൈതയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ നശിപ്പിക്കയാണ് ഫ്ലാറ്റുകൾ ഉണ്ടാക്കാനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് അങ്ങ് കായലിൻ്റെ തീരത്താണ് കൈതകൾ ഉണ്ടാകുക കൈതകൾ ഒക്കെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പായകൾ ഒന്നും ഉണ്ടാക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് എല്ലാ സാധനം കിട്ടാണ്ട് ഇപ്പോൾ അങ്ങനെ ദൗർലഭ്യമാണ് ഇപ്പം എല്ലാ സാധനത്തിനും ദു ദുർലഭ സാധനങ്ങളെ കിട്ടാനുള്ളൂ അപ്പോൾ ഈ സാധനങ്ങള് വിൽക്കുമ്പോൾ പരമാവധി വിലയെടുക്കും അപ്പം ആൾക്കാർക്ക് വാങ്ങാൻ കഴിയുകയില്ല അതൊക്കെയാണ് ഇപ്പഴത്തെ പ്രശ്നങ്ങൾ